ഇരുപത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് പതിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇരുപത്താറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഇരുപത്തി പത്ത് സോറി പത്ത് പതിമൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്

പന്ത്രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട്